ഞങ്ങളുടെ പ്രദേശത്ത് ആരോഗ്യ പ്രവർത്തനത്തിൽ ഒരുപാട് ഉന്നമനങ്ങളുണ്ടായിട്ടുണ്ട് പിന്നെ അത് പോലെ തന്നെ ഇപ്പോള് മഞ്ചേരി മെഡിക്കൽ കോളേജ് ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കില് പുതിയ വലിയ ബിൽഡിംങും പിന്നെ അതിൽ ഒരുപാട് പുതിയ പുതിയ സംവിധാനങ്ങളും ഒക്കെ ഇപ്പോള് ഗവണ്മെന്റിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് സൗകര്യങ്ങളും പിന്നെ എല്ലാം ഇപ്പോള് ഒ പി ആണെങ്കില് അതിൽ പനിക്കൊരു ഒ പി അത് പോലെതന്നെ ഓരോ അസുഖത്തിനും ചികിത്സിക്കുന്ന ഡോക്ടേഴ്സിന്റെ ഓരോ ഒ പിയും പിന്നെ അതിൻ്റെ പ്രത്യേക ടെസ്റ്റ് പോലെയുള്ള കാര്യങ്ങൾക്ക് ഒക്കെ പ്രത്യേക സൗകര്യങ്ങളുണ്ട് പിന്നെ സ്കാനിങ്ങുണ്ട് പക്ഷെ അത് മാസത്തിൽ ഒരിക്കലാണെങ്കിലും മാസത്തിലാണ് ബുക്ക് ചെയ്തിട്ട് കിട്ടുള്ളൂ കാരണം അത്രത്തോളം പേഷ്യന്റ് അവിടെ ഉള്ളത് കൊണ്ട് അപ്പോ സ്കാനിംങും കാര്യങ്ങളും ഒക്കെ നേരത്തെ ബുക്കിങ് അനുസരിച്ച് ആയിരിക്കും ഉണ്ടാവുക അപ്പോള് അങ്ങനത്തെ ചെറിയയൊരു പ്രയാസം അല്ലാതെ മറ്റുള്ള കാര്യങ്ങൾ എല്ലാം കൊണ്ടും ഇപ്പോള് അത്യാഹിത വിഭാഗം ആണെങ്കിലും എല്ലാം വളരെ മികവുറ്റ രീതിയിലാണ് ഉള്ളത് പിന്നെ അത് മാത്രമല്ല നമ്മളെ പ്രാദേശികമായിട്ട് പറയുകയാണെങ്കില് നമുക്ക് ചുറ്റ് ഭാഗത്തും അത്യാവശ്യമായിട്ട് ചില അത്യാവശ്യമായിട്ട് പെട്ടെന്ന് തന്നെ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം അല്ലെങ്കിൽ പ്രഥമ ശുശ്രൂഷ കൊടുക്കണം എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുകയാണെങ്കില് ഹെൽത്ത് സെന്ററുകളുണ്ട് പിന്നെ അവിടെ നല്ല ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് പിന്നെ അത് പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പ്രാദേശികമായ ഇടങ്ങളിൽ പോയിട്ട് ഇടങ്ങളിൽ വന്നിട്ട് ഡോക്ടേർസും അത്പോലെ തന്നെ നേഴ്സുമാരൊക്കെ വന്ന് ഈ പ്രമേഹം പിന്നെ പ്രഷർ കൊളെസ്ട്രോൾ പോലെയുള്ള ടെസ്റ്റുകളും മറ്റും നടത്തുന്നുണ്ട് അപ്പോള് ഇതൊക്കെ ഈ ആരോഗ്യ പ്രവർത്തന മേഖലയില് ആരോഗ്യ മേഖലയില് ഏറ്റവും ഒരു വളരെ വലിയ ഉന്നമനമായിട്ട് തന്നെ കാണാൻ പറ്റുന്നതാണ്